ഹലോ ആ ഞാൻ നേരത്തെ ഇപ്പം ഇങ്ങൾക്ക് ഒരു അരമണിക്കൂർ മുൻപ് ഡ്രോപ്പായി പോയ കസ്റ്റമർ ആണ് നിങ്ങളെ വണ്ടിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് പോയ കസ്റ്റമർ ആണ് ആ എൻ്റെ ഫോണ് നഷ്ടപ്പെട്ടിരുന്നു അത് വണ്ടിയിൽ നിന്ന് മിസ്സായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മൊബൈൽ ഫോണേൽ അത് നിങ്ങളുടെ വണ്ടിയിൽ തന്നേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എന്റേല് ഇല്ലാണ്ടായി പോയത് വണ്ടി കയറുമ്പം എൻ്റെ വണ്ടിയിൽ ഇണ്ടിനു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം ഇപ്പം നോക്കുമ്പം എൻ്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല ഇപ്പം ഞാൻ വിളിക്കുന്നത് നേരത്തെ വിളിച്ച ക്യാബിലത്തെ നമ്പറിലേക്ക് തന്നെയാണ് ഞാൻ വിളിച്ചത് വേറെയാളുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പ എൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ച് നോക്കി പക്ഷേ അത് അറ്റൻഡ് ചെയ്ത് റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷേ കോള് എടുക്കുന്നില്ല അപ്പം ആ വണ്ടിയിൽ തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് നിങ്ങൾക്കു എനിക്ക് ശേഷം വേറെ കസ്റ്റമർ കയറിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് വിളിക്കുന്നത് അത് എൻ്റെ എല്ലാ ഐഡന്റിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും ആ ഫോണിലാണ് ഉള്ളത് എൻ്റെ കാർഡ് പേഴ്സണൽ കാര്യങ്ങളും ഇതെല്ലാം ചെയ്യുന്നതും ആ ഫോണിലാണ് ഞാൻ വർക്ക് ചെയ്തതും ആ ഫോണി തന്നെയാണ് അപ്പം എനിക്ക് മസ്റ്റ് ആയിട്ട് ഫോണ് വേണമായിരുന്നു അപ്പം ഇങ്ങള വണ്ടിയിൽ തന്നെ ഉണ്ടോന്ന് ഒന്ന് നോക്കണം വണ്ടിയിൽ ഉണ്ടെങ്കിൽ നിങ്ങള് ഒന്ന് കൊ തിരിച്ച് കൊണ്ട് തന്ന് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ ഒരുപാട് ദൂരം പോയിട്ടില്ലാന്ന് വിചാരിക്കുന്നു വണ്ടിയിൽ നോക്കിയിട്ട് വിളിക്കുക